ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ അതായത് ഭാഷ ഭക്ഷണം വസ്ത്രം കാലാവസ്ഥ രാഷ്ട്രീയം സാക്ഷരത ഭൂഘടന എല്ലാം കൊണ്ടും ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് ഉത്തരേന്ത്യയെ സംബന്ധിച്ചെടുത്തോളം എന്താ ഭാഷ എന്നു പറയുന്നത് മെയിനായിട്ട് അവർ ഹിന്ദി ഫോളോ ചെയ്യുന്ന ഉത്തരേന്ത്യക്കാർ കൂടുതൽ ഹിന്ദി പിന്നെ അവരുടെ മറ്റ് ഗോത്ര ഭാഷകളും അതായത് അവിടെ ഉള്ള മറ്റു ഭാഷകളൊക്കെ അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഭക്ഷണമാണെങ്കിൽ ഉത്തരേന്ത്യൻ ഭക്ഷണം എന്നു പറയുന്നത് പ്രത്യേക രീതി അതിൽ ദക്ഷിണേന്ത്യയ്ക്ക് വെച്ചു നോക്കുമ്പോൾ ഭക്ഷണത്തിനാണെങ്കിലും ഒത്തിരി വ്യത്യാസം ഉണ്ട് വസ്ത്രത്തെ കാലാവസ്ഥ കാലാവസ്ഥ ആണെങ്കിലും ചൂടു കൂടുതൽ അങ്ങനെയുള്ള എന്നാ ഉത്തരേന്ത്യയിൽ കൂടുതലായിട്ടുള്ളത് രാഷ്ട്രീയമെന്നു പറയുന്നത് ദക്ഷിണേന്ത്യയെ വെച്ചു നോക്കുമ്പം രാഷ്ട്രീയത്തിലും കുറേ വ്യത്യാസങ്ങളുണ്ട് സാക്ഷരതയാണെങ്കിൽ വളരെ കുറവാണ് അതായത് എഴുത്തും വായനയും അറിയാന്മേലാത്ത ജനങ്ങൾ ഉത്തരേന്ത്യയിൽ ഉള്ള പല ഭാഗങ്ങളിലും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർക്ക് അങ്ങനെയുള്ളവർക്ക് സാക്ഷരത വളരെ കുറവായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് കാലാവസ്ഥയിൽ വളരെ വ്യത്യാസം ഉണ്ട് ഭക്ഷണം വസ്ത്രം ഇതെല്ലാം ഉത്തരേന്ത്യയിൽ വെച്ചു നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ട് ദക്ഷിണേന്ത്യയിലെ ഭക്ഷണവും ആയിട്ട് വസ്ത്രം ആണെങ്കിലും വ്യത്യാസം ഉണ്ട് സാക്ഷരതയിലാണെങ്കിലും ഉത്തരേന്ത്യയേക്കാൾ കുറച്ചൂകൂടി സാക്ഷരത കൂടുതൽ ദക്ഷിണേന്ത്യയിലാണ് ഭൂഘടനയും ദക്ഷിണേന്ത്യയിൽ പച്ചപ്പ് പച്ചപ്പെന്നു പറഞ്ഞാൽ കാർഷിക വൃത്തി കൂടലുള്ളത് ദക്ഷിണേന്ത്യയിലേക്ക് ആണെന്നു തോന്നുന്നു ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യേയും ആയിട്ട് കൃഷിയിൽ തന്നെ ഒത്തിരി വ്യത്യാസം ഉണ്ട് ദക്ഷിണേന്ത്യയിൽ ചെയ്യുന്ന പല കൃഷികളും ഉത്തരേന്ത്യയിൽ ചെയ്യുന്നില്ല ചെയ്യാത്തതിൻ്റെ കാരണം എന്നു വെച്ചാൽ അവിടെ ആ കൃഷി ചെയ്യാൻ പറ്റുകയില്ല അതുപോലെ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പല കൃഷികളും ഇവിടെ ദക്ഷിണേന്ത്യയിലും ചെയ്യാൻ സാധിക്കത്തില്ല കാരണം കാലാവസ്ഥയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് പല കൃഷികളും അവിടുത്തെ ഇവിടെ ചെയ്യാൻ സാധിക്കത്തില്ല ഭൂഘടന തന്നെയും ഇവിടെ ദക്ഷിണേന്ത്യയിൽ ഉള്ള മലനിരകളും അങ്ങനെ കൂടുതലാണ് മഞ്ഞ് കൂടുതലാണ് ദക്ഷിണേന്ത്യയിൽ മഴ കൂടുതലാണ് ഉത്തരേന്ത്യയിൽ വെച്ചു നോക്കുമ്പം മഴ കൂടുതൽ ദക്ഷിണേന്ത്യയിലാണ് രാഷ്ട്രീയമാണെങ്കിൽപ്പോലും ജനങ്ങൾ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയം അവർക്ക് കുറേ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം ദക്ഷിണേന്ത്യയിലുള്ള ജനങ്ങൾ കൂടുതലുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിൽ അവരുടെ നേതാവ് എന്തു പറയുന്നുവോ അതാണവർക്ക് വേദവാക്ക്യമെന്നു പറയുന്നതുപോലെ നേതാവ് പറയുന്നത് അവർ അനുസരിക്കുന്നു അത്രയേ ഉള്ളു അല്ലാതെ അതിനകത്ത് ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ അവർ ചെയ്യുന്നത് തെറ്റാണെന്നു പറയാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല അവർ അവരുടെ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്നു പക്ഷെ ദക്ഷിണേന്ത്യ കുറേയുംകുടി വ്യത്യാസം ഉണ്ട് ജനങ്ങൾ കാര്യങ്ങൾ കേട്ടും കണ്ടും പഠിച്ചും മനസ്സിലാക്കിയാണ് ദക്ഷിണേന്ത്യൻ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് ഭക്ഷണമാണെങ്കിൽപ്പോലും ഉത്തരേന്ത്യയിലെ ഭക്ഷണവും ദക്ഷിണേന്ത്യയിലെ ഭക്ഷണവുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ട് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ ഭക്ഷണം എല്ലാവിധ സാധനങ്ങളും ഉപയോഗിക്കും ഭക്ഷണത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കും ദക്ഷിണേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ഭക്ഷണമെന്നു പറയുന്നത് ഒരു പിന്നെ ഒരു വെറൈറ്റി എന്നു വേണമെങ്കിൽ പറയാം ദക്ഷിണേന്ത്യ ആയിട്ട് വെച്ചു നോക്കുമ്പം എരുവ് പുളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വ്യത്യാസം ഈ രണ്ട് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട് ഭാഷ ആണെങ്കിൽപ്പോലും ദക്ഷിണേന്ത്യയിൽ ഹിന്ദി പ്രചാരം കുറവാണ് പ്രാദേശിക ഭാഷകളാണ് കൂടുതലായിട്ട് ദക്ഷിണേന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമേ ഹിന്ദി മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളു ദക്ഷിണേന്ത്യയിലേക്ക് അതാത് സംസ്ഥാനങ്ങളിലെ ഭാഷകളാണ് മെയിനായിട്ട് ദക്ഷിണേന്ത്യയിൽ ഉപയോഗിക്കുന്നത് വസ്ത്രം ആണെങ്കിൽപ്പോലും അതുപോലെ തന്നെ ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല ചില ഗോത്രവിഭാഗങ്ങളിൽപ്പോലും വസ്ത്രം ധരിക്കാത്ത ജനങ്ങളുണ്ട് പക്ഷേ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഉള്ള വസ്ത്രം ധരിക്കാതെ നടക്കുന്ന ജനങ്ങളൊന്നും ദക്ഷിണേന്ത്യയിൽ ഇതേവരെ ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല കാലാവസ്ഥയാണെങ്കിലും ദക്ഷിണേന്ത്യയിലാണ് മഴ കൂടുതൽ തണുപ്പ് കൂടുതൽ തണുപ്പെന്നാൽ മഞ്ഞൊക്കെ കുറേ പക്ഷേ അത് ഉത്തരേന്ത്യയിൽ മഞ്ഞ് സമയമായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് മഞ്ഞാണ് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്